കേരളത്തിൽ കുറേ ഹെൽത്ത് സൗകര്യങ്ങൾ കുറേ ആരോഗ്യപരമായ കുറേ സൗകര്യങ്ങൾ ഉണ്ടെന്ന് വച്ചാൽ ഇപ്പോൾ ഗവണ്മെൻറ്റ് ആശുപത്രികളിലൊക്കെ പ്രസവം അങ്ങനത്തെ പ്രസവ ശുശ്രൂഷ പ്രസവ ശുശ്രൂഷയ്ക്ക് ഭയങ്കര പൈസ കുറവാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഗർഭിണികൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നൽകാറുണ്ട് എന്ന് വച്ചാൽ പിന്നെ കുറച്ച് പൈസ ഒക്കെ ഗർഭിണികൾക്ക് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ അങ്കണവാടി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുക്കുക മീൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് ൻ്റെ പിന്നെ അവർക്ക് വേണ്ട വാക്സിനേഷൻസ് കുട്ടികൾക്ക് വേണ്ട വാക്സിനേഷൻസ് അതൊക്കെ കിട്ടാറൂണ്ട് പിന്നെ ഇങ്ങനെ വയസ്സായ ആൾക്കാർക്ക് വേണ്ട സംഭവങ്ങളും ഒക്കെ കേരളത്തിൽ പല ആശുപത്രികളിലും കിട്ടാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും ഇങ്ങനത്തെ സേവനങ്ങൾ കാണാറ് ഗവണ്മെൻറ്റ് ആശുപത്രികളിലാണ് പൊതു ആശുപത്രികളിലാണ് ഇങ്ങനത്തെ പൊതുമേഖല ആശുപത്രികളിലാണ് ഇതൊക്കെ കൂടുതലും ഉണ്ടാവാറ് പ്രൈവറ്റ് ആശുപത്രികളിലൊന്നും ഇതൊന്നും അധികം കണ്ടിട്ടില്ല അപ്പോൾ കൂടെ നമ്മുടെ ഗവണ്മെൻറ്റ് ഇതിന് പ്രധാനമായും കുറേ ഫണ്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതേ പടി കുറേ അസൗകര്യങ്ങളും നമുക്ക് ഗവണ്മെൻറ്റ് ആശൂത്രി പോയാൽ കിട്ടാറുണ്ട് പല ഗവണ്മെൻറ്റ് ആശുപത്രികളിലും വേണ്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നുമില്ല നല്ല കെട്ടിടം പോലെ അല്ലാത്ത ഗവണ്മെൻറ്റ് ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്